എൻ്റെ പേ അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ ഞാനും എൻ്റെ കുടുംബവും ആയിട്ട് പോയ ഒരു ഇല്ലിക്കൽ ഇല്ലിക്കല്ല് കോട്ടയത്തുള്ള ഇല്ലിക്കൽ എന്നുപറയുന്ന സ്ഥലമാണ് അത്യാവശ്യം മല മല കയറി നമ്മള് മണ്ടയിൽ ചെന്നപ്പൊത്തേക്കും നല്ലൊരു വ്യൂ പോയിന്റ് ആണത് അവിടെ ഗംഭീരമായൊരു അനുഭൂതിയായിരിക്കും രാവിലേയും വൈകിട്ടും കയറുമ്പോഴാണെങ്കില് കുറച്ചും കൂടെ ഭംഗി ഞങ്ങള് ചെന്നത് രാവിലത്തെ ഒരു സമയത്തായിരുന്നു ഞങ്ങള് എനിക്കത് പ്രത്യേകം ഓർക്കാൻ കാരണം എന്നതാണെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയും പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് പോവുമ്പൊത്തേക്കും ഇഷ്ടമുള്ള ആൾക്കാരും അപ്പോൾ നമ്മള് ആദ്യം ചെല്ലുമ്പോൾ തന്നെ താഴേന്ന് മേലേക്ക് നമ്മള് നടന്ന് കയറണം ഒന്നെങ്കില് ഇല്ലെങ്കില് ജീപ്പുണ്ട് ജീപ്പിൻ്റെ സർവീസ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മളത് കൊടുക്കുവാണെങ്കിൽ ഇത്ര ആൾക്കാര് വരുന്ന സമയത്ത് ഇപ്പോൾ ഞ്ഞങ്ങളുടെ ഫാമിലീ മെമ്പേഴ്സ് തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങള് ചെന്നപ്പോൾ തന്നെ ഇത്ര രൂപാ കൊടുത്ത് ഞങ്ങളെ അവര് മുകളിൽ വിട്ടു അപ്പോൾ നമുക്കത് പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഡേൻജെറസായിട്ടുള്ളതല്ല നമുക്ക് പിന്നെ കയറാൻ വയ്യാത്തവർക്ക് താഴെത്തന്നെ ഇരിക്കാനുള്ള തണല് കേന്ദ്രവും അതൊക്കെയുണ്ട് അത്ഒര് നേച്ചറിന് ഒട്ടും ഹാം ചെയ്യാതെ എന്നാൽ നേച്ചർ ഫ്രണ്ട്ലീ ആയിട്ട് തന്നെ കാ സ്ഥലം കണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് അവര് ഒട് ഒരുക്കിയിരിക്കുന്നത് പിന്നെ സൂര്യാസ്തമയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് രണ്ട് സൈഡും കണ്ടമായിരിക്കും അപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ സൂര്യാസ്തമയമൊക്കെ കണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സൂര്യാസ്തമയവും എനിക്ക് പ്രിയപ്പെട്ടതാണ് അപ്പം പറ്റുമെങ്കില് വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ചിട്ടാണ് സാധാരണ പോകാറ്